കഴിഞ്ഞ വർഷം നടന്ന ഒരു യാത്രയെപ്പറ്റി പറയാം ഈ എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാടിൻ്റെ അങ്ങേയറ്റത്താണ് പാലക്കാടിൻ്റെ അങ്ങേയറ്റത്തു നിന്ന് നാഷണൽ ഹൈവേ വഴി മണ്ണർക്കാടിലെത്തി മണ്ണർക്കാടിൻ്റെ മണർക്കാടിന് അടുത്ത് ചിറക്കൽ പടിയിൽ നിന്നും മുകളിലോട്ട് പോകുന്ന ഒരു പാതയുണ്ട് അതുവഴി താണ്ടിയാൽ മലയും മറ്റും താണ്ടി വെള്ളച്ചാട്ടങ്ങളും എല്ലാമുള്ള ഒരു പ്രദേശമായ പ്രകൃതി പ്രകൃതി രമണീയമായ പ്രദേശമായ അട്ടപ്പാടിയിലേക്ക് എത്താം അട്ടപ്പാടയിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമാണ് ഒരുപാട് വളവും തിരിവും എല്ലാം ഉുള്ളൊരു വഴിയാണ് ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന സഞ്ചരിക്കുന്ന എന്നു പറയാൻ ഓരോ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ് അതിലേക്കുള്ള വഴിയിൽ മതിയായ ടാറില്ലാത്തതും അതുപോലെ ആ വഴിയിൽ അത്രത്തോളം സൗകര്യമില്ലാത്തതും അതുപോലെ അത്രത്തോളം ഒരുപാട് യാത്രക്കൾ ടൂറിസ്റ്റുകളാൽ നിറയുന്ന സ്ഥലമാകുമ്പോൾ അതിന് അനുസരിച്ചു റോഡിന് റോഡിന് വീതി ഉണ്ടാവണം ആ വീതിയില്ലാത്തതെല്ലാം ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതാണ് അതിനാൽ ആ വഴി താണ്ടുകയെന്ന് പറയുന്നത് ഏറെ ദുഷ്കരമാണ് അട്ടപ്പാടിയിലേക്കുള്ള യാത്രയെ പറ്റി ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് എങ്ങനെയോ അതിൽ നിന്ന് കഴിഞ്ഞു രക്ഷപ്പെട്ടു എന്നുള്ള ഒരു തോന്നലാണ് എനിക്കിപ്പോഴും അതായത് ഒരു മലയിലൂടെയാണ് അതായത് ഒരു മലയെ വെട്ടി തെളിച്ചു റോഡാക്കുമ്പോൾ പിന്നീട് അതിലൂടെ വളവും തിരിവും എല്ലാം കടന്നു പോകുമ്പോഴുണ്ടാവുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അത് കടന്നു പോവുമ്പോൾ ഉണ്ടാവേണ്ട പ്രയാസം ഒക്കെ ഒന്ന് ഒരാൾക്ക് ഊഹിച്ചാൽ കിട്ടുന്നതാണ് അപ്പോൾ ഈ അട്ടപ്പാടിയിലേക്കുള്ള യാത്രയെ പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യമായി മനസ്സിലേക്ക് വരിക മല കയറി അതായത് കുന്ന് കയറി ഇരുപത് കിലോമീറ്ററോളം കുന്ന് കയറി പിന്നെ അവിടെ നിന്ന് ഉള്ളിലേക്കുള്ള റോഡുകൾ വഴി നാം എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് നാം എത്തണം അതായത് ഇത് അപകട സാധ്യത ഏറെ കുറഞ്ഞതാണ് അതായത് കുന്നായതിനാൽ അമിത വേഗതയിൽ സഞ്ചരിക്കുന്ന എത്രയോ വാഹനങ്ങൾ മിതമായ വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത് ഞാൻ ഓർക്കുന്നുണ്ട് അതായത് ഇത്രയും വെല്ലുവിളികൾ ഒരു യാത്രക്കാരന് നൽകുന്ന ഒരു പാത ഒരു പാതയാണ് ഈ അഗളി അട്ടപ്പാടി വഴി ഒരുപാട് യാത്ര പിന്നീട് പറയേണ്ട ഒരു ഘടകമാണ് ഇത്രയും വീതി കൊറഞ്ഞ റോഡായതിനാൽ ഒരുപാട് സമയം ഈ കുന്നുകയറാൻ അവിടെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ കൂടി വരുന്നുണ്ട് അതിന് പുറമേ തിരക്ക് അതായത് യാത്രക്കാർ ഒരുപാട് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചു വീതിയും എല്ലാം ഉയർത്തേണ്ടതുണ്ട് അതല്ലെങ്കിൽ അത് അപകട സാധ്യത ഒരുപാട് തരുന്നുണ്ട് അതുപോലെ അവിടെ ഒരുപാട് യാത്രക്കാരെ ആകർഷിക്കാൻ പുതിയ പുതിയ റിസോർട്ടുകളും മറ്റും എല്ലാം വരുമ്പോൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് അവിടെയുള്ള പാതകൾ എല്ലാം പാതകളെല്ലാം മെച്ചപ്പെടുത്താനാണ് അതിലേക്ക് എത്താനുള്ള വഴികൾ മെച്ചപ്പെടുത്തിയിട്ട് അതിലേക്കുള്ള സാധനം അതിലേക്കുള്ള മറ്റു കാര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുള്ളൂ അപ്പോൾ എൻ്റെ ബൈക്കിൽ ഞാൻ താണ്ടി ഏറ്റവും വലിയ വെല്ലുവിളി നിറഞ്ഞ പാത എന്നു പറയുന്നത് പാലക്കാടിൽ നിന്ന് അട്ടപ്പാടിലേക്കുള്ള ഒരു യാത്രയാണ്